നമസ്കാരം ഗതാഗത ഏജൻസിയല്ലേ ആ അതെ ഒരു ഇപ്പോഴത്തെ ഉപരിതത്വത്തിൻ്റെ ശുചിത്വത്തിനെക്കുറിച്ച് ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഡയറക്ടലി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അ അതിനു തന്നെ തീർച്ചയായും എപ്പോഴും ഗതാഗതത്തിൽ നിന്ന് നമ്മളെപ്പോഴും നല്ല ഒരു കാര്യങ്ങൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലത്തെ ഗതാഗതം ഒരിക്കലും നമ്മളെ ചതിക്കലില്ല പക്ഷെ എന്നാലും ഞങ്ങൾ മാസങ്ങളോളമായി പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു എന്നു വെച്ചാൽ അത്രയും കോവിഡ് തുടങ്ങിയ അന്നു മുതലേ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് മാസ്ക് ധരിക്കലും കാര്യങ്ങളുമൊക്കെ പക്ഷെ ഞങ്ങളിപ്രാവശ്യം ഊബർ ഉപയോഗിച്ചപ്പോൾ വളരെ വാസ്തവം വളരെ ഭയാനകമായിരുന്നു കാരണം അത് വണ്ടി ഓടിച്ചിരുന്ന ആൾ യാഥാർത്ഥമായും മാസ്ക് ധരിച്ചിരുന്നില്ല മാസ്ക് മൂക്കിനു മേൽ വരുന്നില്ല ആൾ ആൾ അടി മുഖത്തിന്നടിമ്മേൽ ഇട്ടിരിക്കുകയയായിരുന്നു അത് നമുക്ക് വളരെ ഡിസ്റ്റർബിങ് ആക്കി കാരണം നമ്മൾ രണ്ട് മാസത്തോളമായി വീട്ടിൽ നിന്ന് ഇറങ്ങീട്ട് കോവിഡ് തുടങ്ങി അന്നു മുതൽ അത്രയും ശ്രദ്ധയോടെ നമ്മൾ നടന്നിട്ടും ഇത്രയും ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഊബർ വണ്ടീലെ ഡ്രൈവർ ഇത്ര വളരെ കുറച്ചു ശ്രദ്ധിക്കുന്ന കണ്ട് വിഷമം തോന്നി അതെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഊബർ ഓടിക്കുന്ന ആളുകൾക്ക് ഒരു ബോധവത്ക്കരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ശുചിത്വത്തിൽ വണ്ടി സൂക്ഷിക്കുക എന്ന് മാത്രമല്ല അത് അതൊക്കെ വളരെ നല്ല രീതിയിൽത്തന്നെയാണ് ആള് ചെയ്തത് പക്ഷെ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല മര്യാദക്ക് അതുപോലെ ആള് ചുമക്കുന്നുണ്ടായിരുന്നു ഇയാൾക്കിത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ വയസായവരെയോ മറ്റ് വയ്യാത്തവരെയോ ബാധിക്കുകയാണെങ്കിൽ പിന്നീടത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കും കാരണം നമ്മളത് ഇത്രയും നാളും ശ്രദ്ധിച്ചുകൊണ്ടു നടന്നത് ഒരു ഊബർ യാത്രയിലൂടെ ഞങ്ങളെ ജീവിതം ഭീഷണി ജീവിതം ഭീഷണിയിലായ പോലെ മാറുകയാണുണ്ടായത് തീർച്ചയായും തീർച്ചയായും അല്ല ശിക്ഷിക്കാനല്ല മറിച്ചു ബോധവത്കരിച്ച് കൂടുതൽ ആൾക്കാരെ അറിയിക്കാനും ഏറ്റവും പ്രാഥമികമായി നമ്മൾ അറിയേണ്ട കാര്യമാണ് മാസ്ക് എങ്ങനെയാ ധരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് നിർബന്ധമായും എല്ലാവരെയും അറിയിക്കുക അതെ അത്രേയുള്ളൂ തീർച്ചയായും എന്നെ ഈ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ് തീർച്ചയായും തീർച്ചയായും ആ ആ എൻ്റെ പേര് അമ്മിണി ആ എപ്പം വേണമെങ്കിലും വിളിക്കാം ശരി ശരി വളരെ വളരെ സന്തോഷം ഇത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് ശരി തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി ശരി